ഹലോ നിങ്ങൾ കാരണം എനിക്ക് ഏറ്റവും ഇംപോർട്ടൻറ്റായിട്ടുള്ള ഒരു മീറ്റിംങ്ങാണ് നഷ്ടപ്പെട്ടത് നിങ്ങൾ കാരണം നിങ്ങളുടെ സ്റ്റാഫുകൾ കാരണം എയർപോർട്ടിൽ എത്താൻ എനിക്ക് സ്റ്റേഷനിൽ എത്താൻ എനിക്ക് സമയം താമസിച്ചു എൻ്റെ ട്രെയിൻ മിസ്സായി എനിക്കിപ്പോൾ എങ്ങനെ പോകണം എന്ന് എനിക്കറിയില്ലെ എൻ്റെ ഓട്ടോ ഡ്രൈവർ ബസ് ഡ്രൈവർ എല്ലാവരും എന്നെ ഒരു ക്യാബ് ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ ക്യാബ് ഡ്രൈവർ എന്താണ് കാണിച്ചത് കൃത്യസമയത്ത് നമ്മൾ ബുക്ക് ചെയ്തതല്ലേ അപ്പോൾ ആ സമയത്ത് എത്തേണ്ട ചുമതല നിങ്ങളുടേതല്ലേ എന്തായാലും എനിക്ക് നിരാശ നിരാശ മാത്രമല്ല എനിക്ക് എന്തായാലും അതിനു തക്കതായ പ്രതിഫലം കിട്ടണം ഞാൻ തന്ന പൈസ അത് ക്യാബിന് ഞാൻ അയച്ച പൈസ റീഫണ്ടായി എൻ്റെ കയ്യിൽ കിട്ടേണ്ടതാണ് ഇത് ശക്തമായ റീസണാണ് എനിക്ക് എൻ്റെ സമയത്തിനു വില തരാത്ത ഒരു ക്യാബ് ഡ്രൈവറും ഒരു ഏജൻസിയുമായിട്ട് എനിക്ക് ഇനി മുന്നോട്ടു പോകാൻ താത്പര്യമില്ല എന്നെ നിരാശ പ്രകടിപ്പിക്കുന്ന ഒരു ഇതാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയത് നിങ്ങളുടെ ക്യാബ് ഡ്രൈവറും നിങ്ങൾ എല്ലാവരിൽ നിന്നും കിട്ടിയത് ഞാൻ സമയം കൃത്യം സമയത്തു ഞാൻ എയർപോർട്ടിൽ എത്തേണ്ടത് കൊണ്ട് കൃത്യസമയത്ത് ഞാൻ കാർ കാർ ഓർഡർ ചെയ്യ് കാർ വെച്ചിട്ടും കാറിന് ഓർഡർ ചെയ്തിട്ടും ക്യാബ് ഡ്രൈവർ തന്നെ കൃത്യമായി അവിടെ എത്തിച്ചിട്ടില്ല എനിക്കതിൽ നല്ല നിരാശയുണ്ട് ഞാൻ തീർച്ചയായും ഞാൻ നിങ്ങളോടു പറെണു എനിക്കിതിന് റീഫണ്ട് ലഭിച്ചേ പറ്റൂ റീഫണ്ട് ആവശ്യപ്പെടുകയാണ് റീഫണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുക ഇല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് ഇവിടെ ഒരുപാട് കോടതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് റീഫണ്ട് ലഭിച്ചേ പറ്റൂ